ആദ്യകാലങ്ങളിലൊക്കെ പേനയിലും പേപ്പറിലും എഴുതുന്നതാണ് എല്ലാവർക്കും ഇഷ്ട്ടം അതായത് എല്ലാവർക്കും ഇഷ്ട്ടല്ല അന്നത്തെ കാലത്തൊന്നും ഈ ലാപ്ടോപ്പ് മൊബൈൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കുറവാണ് അതായത് പണ്ടത്തെ കാലത്തൊക്കെ പക്ഷേ ഇപ്പൊന്നു വെച്ചിട്ടുണ്ടെങ്കില് കൂടുതൽ ലാപ്ടോപ്പ് മൊബൈൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പൊൾ നമ്മളെന്ന് പറഞ്ഞ നമ്മളെല്ലാരും ഇപ്പൊൾ പൊതുവേ ആരാണെങ്കിലും എളുപ്പമുള്ള കാര്യങ്ങളാണല്ലോ നോക്കുക ഇപ്പൊൾ പേനയും പേപ്പറിലും എഴുതാന്ന് വെച്ചാൽ പേപ്പറെടുക്കണം നമ്മൾ പേനയെടുക്കണം നമ്മൾ കൈ കഴക്കണം എഴുതുമ്പം അങ്ങനത്തെ പരിപാടിയൊക്കെയാണല്ലോ പക്ഷേയീ എനി എനിക്കിതിപ്പം ഇഷ്ട്ടം ലാപ്ടോപ്പിലും മൊബൈലിലും ടൈപ് ചെയ്യാനാണ് അതാണ് നമ്മൾ ഇങ്ങനെ വേഗം ടൈപ് ചെയ്യാനും നമുക്ക് പറ്റും അതായത് നമ്മൾ ടൈപ് ചെയ്തത് എപ്പൊഴും അവിടെത്തന്നെ ഉണ്ടാവും ഇപ്പം പേനയിലും പേപ്പറിലും ആണെങ്കിൽ നമ്മളിപ്പോൾ എഴുതിയതാണെങ്കിൽ വെട്ടണം ഇപ്പൊൾ ചിലപ്പോൾ അസൈൻമെൻറ്റിലൊന്നും വെട്ടാൻ പാടില്ലായിരിക്കും ഇത് ലാപ്പിലൊക്കെയാകുമ്പോൾ നമുക്കിങ്ങനെ ബാക്സ്പേസ് അടിച്ചിട്ടുണ്ടെങ്കില് ആ എഴുതിയതൊക്കങ്ങു മാഞ്ഞുപോകും അപ്പൊൾ അങ്ങനെയൊക്കെയിണ്ട് അപ്പൊൾ എനിക്കതാണിഷ്ട്ടം അതൊക്കെയാണ് മാറ്റങ്ങൾ പണ്ടത്തേന്നുവെച്ചാൽ ഇങ്ങനെ പേ പേനയും പേപ്പറും ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പൊൾ എല്ലാവരും ലാപ്ടോപ്പും മൊബൈലുമൊക്കെയാണ് ടൈപ് ചെയ്യാൻ എടക്കുന്നത് അതാണ് ഇപ്പോൾ ഈ അടുത്ത വർഷങ്ങളിൽ എഴുത്തിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറയാവുന്നത് അതൊക്കെയാണ്